അതുണ്ട് ഞാന് ഇങ്ങനത്തൊരു വിഭവം ഇതിന് മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് ഒരുദിസം ഞാന് വീട്ടിലിരുന്ന സമയത്ത് ചെറിയ വിശപ്പുണ്ടാവുകയും അപ്പോള് ഒരു ചെറിയൊരു ലഘു പലഹാരമായിട്ട് എന്തേലും ഉണ്ടാക്കണമെന്ന് നോക്കി വീട്ടിലുള്ള ചേരുവകള് നോക്കിയപ്പോള് അതിനകത്ത് ബ്രെഡ്ഡുണ്ടാരുന്നു പിന്നെ പാലുണ്ടായിരുന്നു അപ്പോള് അതുവച്ച് നമ്മള് എന്തേലും ചെറുതായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാന് വെറുതേ ഒരു യാദൃച്ഛികമായി ഉണ്ടാക്കിയൊരു വിഭവമാണിത് പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വിഭവത്തിന് ചെയ്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ബ്രെഡ്ഡെട്ത്ത് ബ്രെഡ്ഡ് മൊത്തത്തില് വളരെ ചെറുതായി നുറുക്കി അതിന്റെ മുകളില് പാലും കുറച്ച് പാല്പ്പൊടിയും പഞ്ചസാരയും കലക്കി പിന്നെ അവിടെയുണ്ടായിരുന്ന കുറച്ച് പഴം ഉണ്ടായിരുന്നു വീട്ടില് അപ്പോള് ഈ പഴവും ചെറുതായിട്ട് അരിഞ്ഞ് അതിന്റെ കൂടെ ചേര്ത്ത് നല്ലവണ്ണം ഇളക്കി ഒരു മിശ്രിതമാക്കിയെടുത്തിട്ട് അത് ഫ്രീസറില് വെച്ച് ഫ്രിഡ്ജില് ഫ്രീസറില് വെച്ച് ഉറപ്പിച്ചെടുത്തു ഉറപ്പിച്ചെടുത്തു അപ്പോള് ഒരു പുഡ്ഡിങ്ങ് പരുവത്തിലായിട്ടാണ് കിട്ടിയത് അപ്പോള് ഈ അത്യാവശ്യം നല്ല രുചിയുള്ളൊരു വിഭവം തന്നെയായിരുന്നു ഇതിന് പ്രത്യേകിച്ച് പ്രേരണ എന്താണെന്നു പറഞ്ഞുകഴിഞ്ഞാല് എനിക്കിങ്ങനേ ചെറിയ രീതിയിലൊക്കെ പാചകം ചെയ്യുന്നത് ഇഷ്ടമാണ് അപ്പോള് ഇങ്ങനെ ഒരു ദിവസം ചെറിയൊരു വിശപ്പുണ്ടായിരുന്നപ്പോള് ഇത് ചെയ്തപ്പൊരു ഒരു വീട്ടിലുള്ള സാധനങ്ങള് വെച്ച് തന്നെ ഫുഡ്ഡുണ്ടാക്കാം ഒരു മുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കിയൊരു വിഭവമായിരുന്നു ഇതേ പോലത്തെ കുറച്ച് വിഭവങ്ങളിന്ന് ടി വിയിലൊക്കെ പലപ്പോഴും പല ഭക്ഷണമുണ്ടാക്കുന്ന പരിപാടികള് കണ്ടപ്പോള് തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ പല വിഭവങ്ങളെപ്പറ്റി കണ്ടിട്ടുണ്ട് അപ്പോള് അതിന്റെയൊക്കയൊരു പ്രേരണയാവാം ഈ ഒരു വിഭവത്തിലേക്ക് എത്തിച്ചേര്ന്നതെന്നെനിക്ക് തോന്നുന്നത് എന്തായാലും നല്ല രുചിയുള്ളൊരു വിഭവമായിരുന്നു ഞാന് അതിനൊരു പേരൊന്നും ഇട്ടിട്ടില്ല എന്നാലും വീട്ടിലുള്ള സാധനങ്ങള് വെച്ച് നല്ല രീതിയില് തന്നെ ഉണ്ടാക്കാന് പറ്റിയ വിഭവമായിട്ടെനിക്ക് തോന്നിയെ അപ്പോഴിതേകദേശം പഴേ മായ എന്താണ് പറയുക ചേരുവകള് തന്നെ മതി ബ്രെഡ്ഡ് പാല് പഞ്ചസാര പാല്പ്പൊടി പിന്നേ എന്തേലും പഴങ്ങള് പഴവര്ഗ്ഗങ്ങളുണ്ടെങ്കിൽ അതും അതെല്ലാം കൂടി ഒരിമിച്ച് യോജിപ്പിച്ച് ഫ്രീസറില് വെച്ച് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാല് നല്ലൊരു രുചികരമായ ഒരു ലഘു പലഹാരമായി കിട്ടും അതെല്ലാര്ക്കും തന്നെ ഇഷ്ടപ്പെടുമെന്നാണെനിക്ക് തോന്നുന്നത് അത് എല്ലാവരും ഒരു തവണയെങ്കിലും അതൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങള് എന്തായാലും